ആ ചേച്ചി ഞാൻ കുറച്ച് എണ്ണ മേടിക്കാൻ വന്ന ആണേ ആ അതേ നമ്മള് ഈ എണ്ണ ഫുഡിൽ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ഓർഗാനിക് ആണോ ആ ആ ആ ആ ഇത് നമ്മുക്ക് ആ ഇത് നമക്ക് എന്തിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും

ആ ആ ഇതാ

ആ ആ ആ നമ്മുക്ക് ഈ എണ്ണ കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാ അല്ലേ

ആ ആ മുടി കൊഴിച്ചൽ എല്ലാം ഉണ്ടാവില്ലേ തലേല് എണ്ണ തേക്കുമ്പോൾ ആ

ഇത് അപ്പോൾ നല്ലൊര് എണ്ണ അല്ലേ അപ്പ നമക്ക് ഫുഡിൽ ഒക്കെ ഉപയോഗിക്കാവോ ഇത് കുറേ കാലം കേട് വരാതെ ഇരിക്കുമോ കേട് വരാണ്ട് ഇരിക്കില്ലല്ലേ ആ ഇത് ആ ആ ആ

മ് ആ ആ മ് ഇത് നമ്മള് എങ്ങനെ എടുക്കുക ഇതീന്ന് സ്റ്റോറേജ് ചെയ്യേണ്ടത് സാധാരണ ഇത് വെക്കണത് ഒക്കെ അതോ വെയില് കൊള്ളാണ്ട് ഒക്കെ എടുത്ത് വെക്കണ്ടി വെരോ

ആ ശരി ആ ആ അങ്ങനെ ആണെങ്കീൽ ഒരു ഒരു ലിറ്ററ് എണ്ണ ഇപ്പം എടുത്തേക്കോ പിന്നെ കുറച്ച് എണ്ണ ഇപ്പഴ് ഒരു ഒരു ലിറ്ററ് എണ്ണ എടുക്കാം ആ ഒരു ലിറ്ററ് ആ പിന്നെ ഒരു പത്ത് ലിറ്ററിൻ്റെ എണ്ണ നമ്മക്ക് വേണം കുറച്ച് ദൂരെ പോകുവ റിലേറ്റീവ്സിന് കൊടുത്ത് വിടാൻ ആണേ അത് ഞാൻ പിന്നെ വന്ന് എടുക്കാം

ആ ഇപ്പോൾ ഒരു ഒരു ലിറ്ററ് എണ്ണ എടുത്താ മതി ആ ഉപയോഗിച്ച് നോക്കീട്ട് ഞാൻ പറയാം